ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ എന്നു പറയുന്നത് ഹിന്ദിയാണ് അതിനു പുറമെ സാധാരണയായിട്ട് സംസാരിക്കുന്ന കുറച്ചു ഭാഷകൾ എന്ന് പറയുന്നത് മലയാളം സംസാരിക്കുന്നുണ്ട് കേരളീയർ മലയാളമാണ് സാ സംസാരിക്കുന്നത് തമിഴ് നാട്ടിലുള്ളവർ തമിഴ് സംസാരിക്കുന്നു പിന്നെ കന്നഡ ഭാഷയുണ്ട് പിന്നേ വിവിധ മറ്റു വിവിധ ഭാഷകളുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം കുറച്ചു കൂടി ഭാഷയിൽ വ്യത്യസ്തമായതാണ് കാരണം ഒരു ഭാഷ മാത്രമല്ല ഇവിടെ ഇന്ത്യയിലെത്ര ഭാഷ ഉണ്ട് എന്നു പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഭാഷകളുപയോഗിക്കുന്നൊരു രാജ്യമാണ് നമ്മൾ പറയുകയാണെങ്കിൽ മ നമ്മൾ നമ്മുടെ ഔദ്യാദിക ഭാഷയായിട്ട് ഹിന്ദി സംസാരിക്കുകയും ഓരോ ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ ഭാഷയുണ്ടിപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ടെങ്കിൽ ഇരുപത്തെട്ട് സംസ്ഥാനത്തിനും അവരുടെ ഭാഷകളുണ്ട് കേരളം കേരളത്തിലുള്ളവർ മലയാളം സംസാരിക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ളവർ അവരുടെ മാതൃഭാഷയായി കാണുന്നത് തമിഴിനെയാണ് കന്നഡ ഭാഷയുണ്ട് സിക്കിം ഭാഷയുണ്ട് ഹിമാലയൻ

അങ്ങനെ ഒരുപാട് ഭാഷകൾ അടങ്ങിയതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇന്ത്യയിൽ പലരും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരുമുണ്ട് അവർ ഔദ്യോഗികമായി സംസാരിക്കുന്നു എന്നല്ലെങ്കിൽപ്പോലും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആളുകളുമുണ്ട് ഒരാൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ അതുപോലെ ഈ അറബി ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും കാണാം അതു നമ്മുടെ നമ്മൾ ഭാഷ സംസാരിക്കുന്നതായിട്ടല്ല കുറച്ചു കൂടി ആൾ പഠിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്